ഹലോ ആ ഹലോ സാർ ഞാൻ ഒരു കാര്യം അറിയാൻ വേണ്ടിയാട്ടോ വിളിച്ചത് അത് സാർ ഈ മാസത്തെ കറണ്ട് ബില്ല് വന്നപ്പോൾ ഇതിൽ ചാർജ് ഭയങ്കര കൂടുതലാണല്ലോ കാണിക്കുന്ന ത് ഭയങ്കര പൈസയും കാര്യങ്ങളൊക്കെ ഞങ്ങളാണെങ്കിൽ ഇവിടെ കുറച്ചു കൂടുതലായിട്ട് വരുന്നത് സാർ ഞങ്ങൾ ഇവിടെ രണ്ടു പേരേ ഉള്ളൂ ഞങ്ങൾ പിന്നെ അങ്ങനെ ഇലക്ട്രിസിറ്റിയൊന്നും അങ്ങനെ ഉപയോഗിക്കാറൊന്നും ഇല്ല കറണ്ട് ഇൻ്റെ ഇതൊക്കെ ഭയങ്കര കുറവായിട്ടേ ഞങ്ങൾ ഉപയോഗിക്കുകയുള്ളു പിന്നെ ഇത് ഇങ്ങനെ കൂടുതലെന്താണ് വരുന്നത് ഇത് ഇപ്പോൾ ഒരു മാസത്തെ കാര്യമൊന്നും ഇല്ല ഇത് ഇപ്പോൾ കുറച്ചു മാസങ്ങളായിട്ട് ഇങ്ങനെ കൂടുതലാണ് വരുന്നത് അതെന്ത് അതെന്താണ് സംഭവം എന്താണ് സംഭവമെന്താണെന്ന് അറിയണ്ടേ ഇത് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ വരികയല്ലേ ആ ഇതിൻ്റെ തെളിവ് എന്താണ് ഞങ്ങളുടെ കൈയിൽ പിന്നെ തെളിവൊക്കെ ഉണ്ട് ഞങ്ങൾ കുറച്ചാണ് യൂസ് ചെയ്യുന്നൊള്ളതിൻ്റെയൊക്കെ നിങ്ങൾ പിന്നെ എന്തിൻ്റെ ഇതിൽ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ തരുന്നേ നിങ്ങൾ എന്താണ് ഞങ്ങള ഊറ്റാൻ നോക്കുകയാണോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഞങ്ങൾ കുറച്ചു പേരേ ഒള്ളു ഇതാ ചാർജ് മറ്റേ ചാർജ് അത് അതെന്നൊക്കെ പറഞ്ഞൂ എന്ത് ഇനി കൂട്ടാൻ നിൽക്കുന്നത് ആ ഓക്കെ ഓക്കെ